ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണം സംവിധാനം മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം ശോചനീയമായ അവസ്ഥയാണ് കാരണമെന്നു പറയുന്നത് നമ്മുടെ സാധാരണക്കാര് കൂടുതലും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ് ആ സർക്കാർ ആശുപത്രികളിലെ പ്രവർത്തനമെന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമാണ് കാരണം ഒന്നാമതായിട്ടവിടുത്തെ ശുചിത്വം ശുചിത്വമെന്ന് പറയുന്നത് നമ്മളാ സർക്കാരാശുപത്രികളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു ജലദോഷം കൊണ്ടു പോകുന്ന നമ്മള് അതിലും വലിയ അസുഖമായിട്ട് തിരിച്ചുവരുന്ന രീതിയിലാണ് പല സർക്കാർ ആശുപത്രികളിലേയും നിലവിലുള്ള സംവിധാനം പിന്നെ നീണ്ട ക്യൂകള് പിന്നെ പലപ്പോഴും സേവനത്തിന് ഡോക്ടർമാരുടേയും മരുന്നുകളുടേയും ലഭ്യമില്ലായ്മ ഇതെല്ലാം ഒരു സർക്കാർ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഇപ്പോള് ഇന്ത്യയിലെ തന്നെ ആരോഗ്യ സംരക്ഷണം സംവിധാനമെടുത്തുകഴിഞ്ഞാല് മറ്റു രാജ്യങ്ങളെ വച്ചുനോക്കുമ്പോഴത്തേക്ക് ഗ്രാഫിൽ വളരെയധികം താഴ്ന്നതാണ് അതിനുദാഹരണങ്ങളാണ് നമ്മുടെ മന്ത്രിമാരും നമ്മടെ എം എല്ലേമാരും ഉന്നത ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലുമിരിക്കുന്നവരും കൂടുതലും അവരുടെ ആരോഗ്യ കാര്യങ്ങള്ക്കായി ആശ്രയിക്കുന്നത് പുറത്തുള്ള രാജ്യങ്ങളെയാണ് എന്തുകൊണ്ടാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്തും വേണ്ടി താഴ്ന്ന ലെ താഴ്ന്ന അവസ്ഥകളിലാണെന്ന് കാരണം ആദ്യം നമ്മള് കൊണ്ടുവരേണ്ട ഒരു നിയമമെന്ന് പറയുന്നത് ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം അനുഭവസമ്പത്തും മറ്റ് പ്രൈവറ്റാശുപത്രിയിലിരിക്കുന്ന ഡോക്ടർമാരേക്കാളിലും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുമെല്ലാം ഉള്ളവയാണ് എന്നിട്ടുമെന്തുകൊണ്ട് മികച്ച ഒരു ചികിത്സ കാഴ്ചവെക്കാനായിട്ടവർക്ക് സാധിക്കുന്നില്ല അതിനുള്ള കാരണമാണ് നമ്മളാദ്യം കണ്ടെത്തേണ്ടത് അതിന് പ്രധാനമായിട്ടും അധികാരികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഗവണ്മെൻറ്റ് ശമ്പളം മേടിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും നിർബന്ധമായിട്ടും അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങള് ഗവണ്മെൻറ്റാശുപത്രികളിൽ തന്നെ പോവുക അങ്ങനൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഗവണ്മെൻറ്റാശുപത്രികള് എല്ലാം വളരെ പെട്ടെന്നു തന്നെ ഹൈ ടെക്ക് രീതിയിലോട്ട് വളരെ വിദേശ രാജ്യങ്ങളിലേക്കാളും മികച്ച ആരോഗ്യ സംവിധാനം ആരോഗ്യ സംരക്ഷണ സംവിധാനം നിലനിർത്തുന്ന രാജ്യങ്ങളാക്കി നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും കാരണം ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും മന്ത്രിമാരുമെല്ലാം ഗവണ്മെൻറ്റാശുപത്രികളെ ആശ്രയിക്കുമ്പോഴത്തേക്ക് അതനുസരിച്ചൊരു മോണിറ്ററിങ്ങ് ഉണ്ടാവും നമ്മുടെ ആശുപത്രികള് അതനുസരിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുമെല്ലാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നല്ലയൊരു ഭരണ സംവിധാനം കാഴ്ചവെക്കാനായിട്ട് നമ്മുടെ ആശുപത്രികൾക്ക് സാധിക്കും